വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു വസ്ത്രം നെയ്യുന്ന ഒരു ചെറിയ കഥ എനിക്കും പറയുവാനുണ്ട് കാരണം എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാവനാടകം അവതരിപ്പിക്കേണ്ടൊരു സാഹചര്യം വന്നു ചേർന്നു അപ്പോൾ ഈ പാവനാടകത്തിന് വേണ്ടിയിട്ട് പാവയ്ക്ക് ഉടുപ്പ് തയ്ക്കേണ്ട തയ്ക്കേണ്ടതായിട്ടും വന്നു അപ്പോൾ ആ പാവ ഈ പാവനാടകത്തിനു വേണ്ടിയിട്ട് പാവയെ നിർമ്മിച്ച് പാവയ്ക്കുള്ള ഉടുപ്പ് തയ്ക്കാമെന്നു പറഞ്ഞു കഴിയുമ്പോൾ രണ്ടുടുപ്പ് തയ്ക്കേണ്ടതായിട്ട് വന്നു ഒന്ന് ആൺ പാവയ്ക്കുള്ള വേഷവും പെൺ പാവയ്ക്കുള്ള വേഷവും അന്നിതേപോലെയുള്ള യൂട്യൂബ് ചാനലുകളോ എങ്ങനെ തയ്ക്കണം എന്നതിനെക്കൊണ്ട് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും അന്ന് നിലവിലില്ലായിരുന്നു അപ്പോൾ ഇതെങ്ങനെ തയ്ക്കണം എൻ്റെ അമ്മയ്ക്കോ അമ്മയും ഇങ്ങനെ തയ്ക്കുന്ന ആളല്ല അമ്മ അത്യാവശ്യം പൂവൊക്കെ തയ്ക്കുന്ന ഒരു ആൾ മാത്രമായിരുന്നു പൂവൊക്കെ തുന്നാൻ അമ്മയ്ക്കറിയാമായിരുന്നു പക്ഷെ ഇതെങ്ങനെ തയ്ക്കും എന്നതിനെക്കുറിച്ച് ഒറഉ ഐഡിയയും ഇല്ല അപ്പോൾ ഏകദേശം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പൊക്കെ നോക്കി ഞാനിങ്ങനെ പത്രം ഉപയോഗിച്ച് വെട്ടി ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം മടക്കി അടിച്ച് ഒരു ഉടുപ്പ് തുന്നി ഉണ്ടാക്കി അതിന് ശേഷം പാവയെ ധരിപ്പിച്ചു വളരെ മനോഹരമായിട്ട് ഉടുപ്പ് തയ്ച്ച് ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നിട്ട് ഞാനിത് കൊണ്ടുപോയി പാവനാടകത്തിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത് വളരെ നന്നായി തയ്ച്ചു ഇതിന് മുന്നേ തയ്യൽ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണിത് തയ്ച്ചത് എനിക്കിപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി അതുപോലെതന്നെ രസകരമായ ഒരനുഭമായിരുന്നു കാരണം അതിനു മുന്നേ നമ്മുടെ സ്വന്തം ഒരു ഐഡിയ വെച്ച് ഒരു സാധനം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വസ്തുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ചെറുപ്പത്തിൽ മറ്റു കുട്ടികൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്ത്രം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അങ്ങനെ ഒരു മാതൃക നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് നമ്മളത് തയ്ച്ചു കഴിഞ്ഞപ്പോഴും വളരെയധികം മനോഹരമായിട്ട് എനിക്കത് തയ്ച്ചു പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു അധ്യാപകരും അതുപോലെതന്നെ മുതിർന്നവരും ഇതെല്ലാ പാവനാടകം കളിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രശംസ ലഭിച്ചത് ഈ ഉടുപ്പ് തയ്ച്ച് പാവയ്ക്ക് ഇത് ഇട്ടു കണ്ടപ്പോഴാണ് അപ്പോൾ വളരെ ഒരു എനിക്ക് വളരെയധികം എനിക്ക് സന്തോഷം നൽകിയൊരു സംഭവമായിരുന്നു ഈ തുന്നുന്ന വെല്ലുവിളി നിറഞ്ഞ ഈ തുന്നൽ എന്നുള്ള പ്രക്രിയ